ഫോട്ടോഗ്രാഫി ഒരു നല്ലൊരു തൊഴിൽ തന്നെയാണ് ഫോട്ടോഗ്രാഫി എന്നല്ല എല്ലാ തൊഴിലും അതിൻ്റേതായ ഒരു മാന്യത ഉണ്ട് ഫോട്ടോഗ്രാഫി ഒരു ഫാഷണബിളായിട്ടുള്ള ഒരു ജോബ് തന്നെയാണെന്ന് പറയാം ഈ കാലഘട്ടങ്ങളിൽ ഫോട്ടോഗ്രാഫി ഒക്കെ പുരോഗമനം കാരണം മാറിപ്പോയി എന്ന് തന്നെ പറയാം ആദ്യ കാലത്തൊന്നും ഉണ്ടായിരുന്ന ഫോട്ടോ ഗ്രാഫേഴ്സിനൊക്കെയും ഇപ്പോൾ ജോബൊന്നും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം അവരുടെ സംതൃപ്തിക്ക് അനുസരിച്ച് എടുത്ത് കൊടുക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള പോ ഫോട്ടോഗ്രാഫേഴ്സിനെ ആണ് ഇപ് ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ജോബ് ഉള്ളത് എന്ന് തന്നെ പറയാം കല്യാണ ഫോട്ടോകളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ രണ്ട് ദിവസത്തെ ഫോട്ടോ ഷൂട്ട് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് കല്യാണ ദിവസവും കല്യാണത്തിൻ്റെ തലേ ദിവസവും ചെല കുറച്ചു ഹൈ ടീമ്സിനൊക്കെ ഔട്ട് ഡോർ എന്ന് പറഞ്ഞും ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നോർമൽ ആണ് കല്യാണത്തിന് മുന്നെ പ്രീവെഡിങ്ങ് ഷൂട്ടെന്ന് പറഞ്ഞും സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞും പല ഫോട്ടോസും പല സ്ഥലങ്ങളിലും പോയിട്ടാണ് ഓരോരുത്തരും എടുക്കുന്നത് അത് കഴിഞ്ഞ് ടെബിൾ ഷൂട്ടെന്ന് പറഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പോയിട്ടും കല്യാണത്തിൻ്റെ തലേൻ്റെ തലേ ദിവസം ഹൽദി എന്ന് പറഞ്ഞും തലേ ദിവസം കല്യാണം പാർട്ടി എന്ന് പറഞ്ഞും കല്യാണത്തിൻ്റെ അന്ന് അന്നും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഔട്ട് ഡോർ എന്ന് പറഞ്ഞ് പിന്നീടും അതായത് പോസ്റ്റ് വെഡിങ്ങ് ഷൂട്ടെന്ന് പറഞ്ഞ് പിന്നെയും ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒതുക്കിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു അഞ്ചും ആറും ഘട്ടങ്ങളിലായി എടുത്തുകൊണ്ടിരിക്കുന്നത്